ഇപ്പം ഞാൻ നിന്ന ഷോപ്പെന്ന് വച്ചിരുന്നാല് ബില്ലിംഗ് സെക്ഷനില് നിൽക്കുവാണെങ്കില് സീൻ ഇല്ല അപ്പം നമുക്ക് ബില്ലടിച്ചാൽ മാത്രം മതി അപ്പം ആ കാര്യങ്ങള് ചെയ്യുവാണെങ്കില് നമ്മള് നോർമൽ കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യുക എന്ന് വച്ചാല് ഗുഡ്മോർണിങ് അതേപോലെ തന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ബില്ല് അടിച്ചു കൊടുക്കുക അത് നമ്മള് സെയിൽസിൻ്റെ ഒരു പക്ഷത്തേക്ക് വരുമ്പം നമുക്ക് ഒരു ഇത്ര മാസം കൊണ്ട് അല്ലെങ്കില് ഇത്ര ദിവസം കൊണ്ട് ഒരു ബഡ്ജറ്റ് കമ്പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തരും അപ്പം നമ്മള് ചെയ്യുന്ന പ്രൊഡക്റ്റ് അവരെക്കൊണ്ട് മാക്സിമം എടുപ്പിക്കാൻ ഒക്കെ നോക്കുക അങ്ങനെയൊക്കെ വരുന്ന പ്രൊജക്റ്റ് നമ്മള് ഭയങ്കര എന്താ പറയുക ഇതാകും പിന്നെ നമ്മുടെ ഓണം അതേപോലെ തന്നെ ഓരോ ഇതിനൊക്കെ വരുമ്പോൾ നമുക്ക് മിഡ്നൈറ്റ് സെയില് അതുപോലെ തന്നെ സെയിൽസൊക്കെ വരും അങ്ങനെയൊക്കെ വെരുമ്പം നമുക്ക് ഓവർ ഡ്യൂട്ടി എടുക്കുന്ന ടൈമ് വരും അങ്ങനെയൊക്കെ വരുമ്പം എന്താ പറയുക നമുക്ക് എന്താ പറയുക വെല്ലുവിളി നമുക്ക് ഓവർടൈമ് അവിടെ നിക്കേണ്ടി വരും സ്പെൻഡ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ കാര്യങ്ങള് ഭക്ഷണം കഴിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അതുപോലെ തന്നെ ഭയങ്കര ആളുകളും തിരക്കൊക്കെ കാര്യങ്ങൾ ആയിരിക്കും ആൾക്കാരെ മൈൻഡ് ചെയ്യണം അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നീഡ്സും വാൻഡ്സുമൊക്കെ ചോദിച്ചറിഞ്ഞ് എന്താ പറയുക ഒരു എന്താ ഭയങ്കര ഒരു വെല്ലുവിളി ആയിരിക്കും ആ ടൈമില് ഉണ്ടാവുക അപ്പം നമുക്ക് നമ്മുടെ ഇതിന് ഒരു ബോണസ് കൂടുന്നത് കൊണ്ട് നമുക്ക് വലിയ രീതിയില് പ്രശ്നങ്ങള് ഉണ്ടാവില്ല